നമുക്ക് നാട്ടിൽ സാധാരണയായി വളർത്തി വരുന്ന ബ്രോയിലര് കോഴി നാടന് കോഴി കാടക്കോഴി ഗിനിക്കോഴി അങ്ങനെ പല ആവശ്യങ്ങള്ക്കായിട്ട് പല രീതിയില് നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാന് പറ്റും വീട്ടാവശ്യത്തിനും ഗ്രാമ ഗ്രാമപ്രിയ നാടന് കോഴികളാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് അതിനെ ഒത്തിരി കെയറൊന്നും നമുക്കാവശ്യമില്ല തന്നെ ആഹാരമെടുത്തോളും അഴിച്ച് വിട്ട് പറമ്പിലും ഒക്കെ നടന്ന് അതിനാവശ്യമുള്ള തീറ്റിയൊക്കെ കുറച്ച് അത് നമുക്ക് പരിരക്ഷ കുറവ് നമ്മൾ സംരക്ഷണം കുറച്ച് കൊടുത്താൽ മതി നമുക്ക് എന്നാൽ പിന്നെ അതിനെ പെട്ടന്ന് അതിന്റെ മുട്ടയും നാടന് മുട്ടയും നാടൻ ഇറച്ചിയും നമുക്ക് ധാരാളം ശരീരത്തിന് ആവശ്യത്തിന് നല്ലതാണ് ദോഷം ഒന്നുമില്ല കുഴപ്പമില്ല ഹോര്മോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് കുട്ടികള്ക്കും ഒക്കെ പിന്നെ ഇറച്ചി കുറവായിരിക്കും നാടന് കോഴികള്ക്ക് ബ്രോയിലറാണെങ്കില് ബ്രോയിലര് കോഴികളെ വളര്ത്തുമ്പം നമുക്ക് കൂടുതലും വ്യാവസായിക അടിസ്ഥാനത്തിൽ വളര്ത്താം മുട്ടയും കിട്ടും ഇറച്ചി കൂടുതലുണ്ട് പിന്നതിന് കൂടുതൽ സംരക്ഷണം നമുക്കാവശ്യമുണ്ട് തീറ്റി വാങ്ങിച്ച് കൊടുക്കണം കൂട്ടിൽ തന്നെയിട്ട് വളര്ത്തണം പിന്നെ ഗിനിക്കോഴി അത് കൂടുതലും നമുക്ക് നല്ല ഇത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇറച്ചി കൂടുതൽ കിട്ടും പിന്നെ പല രീതീലുള്ളത് ഒരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ചെയ്യാവുന്നതാണ് എപ്പോഴും നമുക്ക് ഈ ഇന്നത്തെക്കാലത്ത് വെളിൽ നിന്ന് ഹോര്മോണെക്കെ കുത്തിവെച്ച് വെളീല് നിന്ന് വാങ്ങുന്ന ബ്രോയിലര് കോഴി ഒക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിൽ നാടന് കോഴികളാണ് ഞാന് പ്രിഫറ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് മുട്ടയും ഇറച്ചിയും ലഭിക്കും പിന്നെ പോരായ്മേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി കുറവായിരിക്കും എല്ലായിരിക്കും കൂടുതൽ അപ്പം വീട്ടിൽ തന്നെ ബ്രോയിലറ് നമ്മുടെ ഈ ഇന്ജെക്ഷനൊന്നും കുത്തിവെക്കാതെ തീറ്റിയൊക്കെ കൊടുത്ത് ബ്രോയിലര് ചിക്കന് വേണേൽ നമുക്ക് തന്നെ വളര്ത്തിയെടുക്കാവുന്നതാണ്